യോഗ ഒരിക്കലും ഒരു വ്യായാമം മാത്രമായി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം ഇപ്പോൾ വളരെ കൂടുതലാണ് യോഗ ഒരു ശരീര ഭാഷയായി വന്നിരിക്കുകയാണ് കാരണം നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് നമ്മൾ ആരാണ് എങ്ങനെ ജീവിക്കുന്നു എല്ലാം യോഗ നമ്മളെ പഠിപ്പിച്ചുതരും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചലനങ്ങൾ സംഭവിച്ച് നമ്മുടെ മനസ്സിന് സമാധാനപരമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ യോഗ നമ്മളെ സഹായിക്കുന്നു പിന്നെ മനസ്സ് കണ്ട്രോൾ ചെയ്യാനും നമ്മളിൽ ശാന്തത കൈവരാനും യോഗ പ്രദാനം ചെയ്യുന്നു നമുക്ക് അതിനുവേണ്ടിത്തന്നെ ഒരുപാട് എക്സ്ർസൈസുകൾ യോഗയിൽ പറയുന്നുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനു ശേഷം മാത്രമാണ് നമ്മൾ യോഗയുടെ ഓരോ എക്സ്ർസെയ്സിൻ്റെ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ കൈ കൈവിരൽക്കുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുപോലെതന്നെ പല രോഗങ്ങളും ഇപ്പോൾ എക്സ്സൈസ് എക്സ്ർസൈസിലൂടെയും പല രോഗങ്ങളെയും നമുക്ക് സുഖപ്പെടുത്താനും അതിനെ കണ്ട്രോൾ ചെയ്യാനും യോഗ ഇപ്പോൾ വളരെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ടെൻഷൻ ഇല്ലാത്തവരായി ആരും തന്നെയില്ല കാരണം അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല അത് പക്ഷേ ഒരു യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ പറ്റും നമ്മൾ ശാന്തരായി നമ്മൾ സമാധാനപരമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഈ യോഗയിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആയി ഒരു എനർജി നമുക്ക് ശരീരത്തിലെത്തിക്കാനും നമ്മുടെ ശരീത്തിലേക്ക് ഓക്സിജൻ നിറയ്ക്കാനും ഈ യോഗയിലെ പല എക്സ്ർസൈസുകളും നമ്മളെ സഹായിക്കുന്നു ഒരു നല്ല മെഡിറ്റേഷൻ തന്നെയാണെന്ന് നമുക്ക് യോഗയെ പറയാം പ്രായപരിധി എന്നോ ഒന്നും തന്നെയില്ല ചെറിയ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്നവർക്ക് വരെ യോഗ ചെയ്യാനുള്ള എല്ലാവിധ പിന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ രീതികളും യോഗയിൽ പരാമർശിക്കുന്നുമുണ്ട് അതായത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തർ യോഗ ചെയ്യുന്നത് അതൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ് അതായത് ചില ആൾക്കാർ യോഗ ചെയ്യുന്നത് അവരുടെ ശരീര വണ്ണം കുറയ്ക്കാനാണ് പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റു ചിലരോ അവരുടെ ശരീര വണ്ണം കൂട്ടാനുമാണ് അങ്ങനെ പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും യോഗയിൽ നല്ല നല്ല എക്സ്ർസൈസുകൾ ഉണ്ട് അങ്ങനെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നുതന്നെയാണ് യോഗ അത് നമുക്ക് എന്നും കൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും കൂടെ ചേർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ഹാബിറ്റ് കൂടിയാണ് യോഗ